ആ സുനിതേച്ചി സുഖമായിട്ടിരിക്കുന്നൊ ആ ഇവിടെ കുഴപ്പമില്ല നന്നായിട്ട് പോകുന്ന് വർക്ക് ഒക്കെ ഉണ്ടോ മ് മ് ആ എന്തുപറ്റി ആ ബിനിക്കും ആ ആ എനിക്കും സെയിം പ്രശ്നം ചേച്ചി മ് മ് ഞാനും ആ അപ്പുറത്ത് ആ വി ആ ചേച്ചിയുടെ ടോയ്ലറ്റിലാണ് ഞാനും പോകുന്നത് എത്ര എന്ന് വെച്ചാണ് അവിടെ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കും ഈ യൂറിൻ പിടിച്ച് വെച്ചിട്ടെനിക്ക് നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് പീരീഡ്സക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് പാഡ് ചേഞ്ച് ചെയ്യാനൊ ഒന്നും പറ്റുന്നില്ല വല്ലാത്ത അവസ്ഥയാണ് ആ ആ ആഹ് ഞാനും ഒന്ന് ഞാനും ഒന്ന് പുള്ളിക്കാരനോട് സൂചിപ്പിച്ചായിരുന്നു പക്ഷേ വലിയ റെസ്പോൺസ്സൊന്നും തന്നില്ല വലിയ മൈൻറ്റില്ലാതെ ഒക്കെ നിൽക്കുന്നത് പക്ഷെ നമുക്ക് ഇത് അത്യാവശ്യമാണല്ലൊ ചേച്ചി പറഞ്ഞപ്പം എന്തു പറഞ്ഞു ആൾ മ് എത്രയും പെട്ടെന്നതൊന്ന് ശെരിയാക്കിയിരുന്നേൽ കൊള്ളാമായിരുന്നു കാരണം ഒന്ന് മ് സത്യം മ് അത് മാത്രമല്ല ഇപ്പം ക്ലയന്റ്സ് ഒക്കെ വരുമ്പഴത്തേക്കും ചിലരൊക്കെ ടോയ്ലറ്റ് ചോദിക്കും അപ്പത്തേക്കും ആ അവരുടെ അടുത്ത് ഇല്ലാന്ന് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട് മ് മ് പിന്നെ പിന്നെ വേറൊന്നും ഇല്ല ചേച്ചി ഞാൻ വിളിക്കാമെ എനിക്കൊര് ക്ലയന്റ് ഉണ്ട് കേട്ടൊ മ്